കോഴിക്കോട് ജില്ലയുടെ ചരിത്രം എന്നു പറയുന്നത് കുറേ കാലങ്ങൾക്ക് മുമ്പ് പോർച്ചുഗീസിന് മുമ്പ് നമ്മുടെ അറബികളും ചൈനക്കാരുമായിരുന്നു നമ്മുടെ ഇവിടെ കപ്പൽമാർഗ്ഗം കോഴിക്കോട് വന്ന് കച്ചവടം നടത്തിയതും എന്നൊക്കെ കാരണം സുഗന്ധവ്യഞ്ജന വസ്തുക്കൾക്ക് കേരളം എന്നും ഫെയ്മസ് ആയിരുന്നു മഞ്ഞള് കരുമുളക് കാപ്പി അപ്പോൾ അതൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് അവര് ഇവിടുന്നു അങ്ങോട്ട് കൊണ്ടുപോകാനും അവരുടെ പിന്നെ പെർഫ്യൂം അങ്ങനെ വേറെ പല സാധനങ്ങളും ഇങ്ങോട്ട് എത്തിക്കാനും അവർ കപ്പൽ മുഖാന്തിരമാണ് വന്നത് പിന്നെ നമുക്ക് പിന്നെ നമുക്ക് ചരിത്രത്തിൽ പറയുന്നുണ്ട് വാസ്കോഡിഗാമ പിന്നെ കാപ്പാട് ബീച്ചില് വന്നതും അവിടെനിന്ന് ഡച്ചുകാർ നമ്മുടെ കേരളത്തില് കാലുകുത്തുന്നതും അതായത് മലബാർ കോഴിക്കോടെന്ന് പറയുന്നേരം മലബാറിൻ്റെ തലസ്ഥാനമാണ് കോഴിക്കോട് പണ്ട് കാലിക്കറ്റെന്നും ഇപ്പോൾ കോഴിക്കോടെന്നൊക്കെ പേര് വന്നു പിന്നെ അന്ന് നമ്മുടെ കോഴിക്കോടിനൊരു ഇതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സാമൂതിരിമാരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് പിന്നിപ്പോൾ ഗവൺമെൻ്റിൻ്റെ ഭരണമാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് ഡച്ചുകാര് ഇവിടെ വരുന്നതും പിന്നെ ഇത് കൊണ്ടുവരുന്നതൊക്കെ ചെയ്യുന്നത് പിന്നെയെന്ന് പറയാൻ കുറേ പ്രത്യേകതയുണ്ട് ഇപ്പോൾ ജനുവരി ഒന്നിനാണ് കോഴിക്കോട് സ്ഥാപിതമായത് വർഷം വർഷം അങ്ങനെയൊക്കെ ആണ് പിന്നെ ഇവിടുന്നു പ്രശസ്തരായവരെന്നു പറഞ്ഞാൽ പല രീതിയിൽ പ്രസിദ്ധരായിട്ടുള്ളവരുണ്ട് ഇപ്പോൾ പ്രസിദ്ധിയിൽ നിൽക്കുന്ന ആൾക്കാരും കോഴിക്കോടിൽ നിന്നുള്ളവരുണ്ട് അതിലിപ്പോൾ നമുക്ക് സിനിമതാരങ്ങളെ നോക്കുകയാണെങ്കിൽ അനൂപുണ്ട് സിതാരയുണ്ട് പാട്ടുകാരി ശാന്താദേവി ഉണ്ട് മംമ്ത മോഹൻദാസുണ്ട് പ്രജിഷയുണ്ട് പാർവ്വതിയുണ്ട് സിനിമ മേഖലയിൽ കുറേപ്പേര് കോഴിക്കോടിൽനിന്നുള്ളവരുണ്ട് മാമുക്കോയ പിന്നെ നമുക്ക് ഓട്ടത്തിലാണെങ്കിൽ പിടി ഉഷ പി ടി ഉഷ നമ്മുടെ കോഴിക്കോടുകാരിയാണ് അതായത് ഒളിമ്പിക്സിൽ വരെ പോയിട്ടുള്ള ഒരു ലെജൻ്റാണവര് പിന്നെ നമുക്ക് എഴുത്തുകാരുണ്ട് എസ് കെ പൊറ്റക്കാടുണ്ട് എംടി വാസുദേവൻ നായരുണ്ട് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുണ്ട് സുകുമാർ അഴീക്കോടുണ്ട് പിന്നെ അതേപോലെത്തന്നെ വൈക്കം മുഹമ്മദ് ബഷീറുണ്ട് ഇവരൊക്കെ കേരളത്തിൽനിന്നല്ല കോഴിക്കോടിൽ നിന്നുള്ളവരാണ് ഇവരൊക്കെ പ്രശസ്തിയുടെ ഉന്നതിയിലെത്തിയവരുമാണ് എന്നും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റി നമ്മുടെ കോഴിക്കോട് എന്ന് ഇന്നുള്ളവരാണ് അവരവിടെയാണ് ജനിച്ചത് അവരുടെ ബോൺ പ്ലേസ് എവിടെയാന്നു നോക്കിയാൽ കോഴിക്കോടാണ് കാരണം അവര് നമുക്ക് തന്നേക്കുന്നത് നമ്മുടെ നാടിനെ ഉന്നതിയിലേക്കാണവരത് എത്തിക്കാൻ ശ്രമിച്ചത്